ഹലോ ആ ഞാൻ എൻ്റെ മക്കളെ അവിടെ ചേർക്കാൻ വേണ്ടയിട്ടായിരുന്നു അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് രണ്ട് കുട്ടികളാണ് രണ്ടാം ക്ലാസ്സിലേക്ക് ഇരുപത്തി അയ്യായിരം ഒരു കുട്ടിക്കാണോ ആ അപ്പോൾ ബാക്കി ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്

ഓക്കേ

ആ അതെന്തായിരിക്കും ആ ഓക്കെ ഞാൻ ഈ അടുത്ത ദിവസം തന്നെ വരാം നിങ്ങൾ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു ഞങ്ങളെ വീട് കാക്കവയൽ അതെയല്ലേ ഓക്കെ ഓക്കെ

ഓക്കെ ഓക്കെ ഇപ്പം മനസ്സിലായി ഞാൻ അതറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു എത്ര രൂപയാണ് എൻ്റെ മക്കളെ ചേർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ രണ്ടുപേരുണ്ട്